വ്യത്യസ്ത ഋതുക്കൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കാറ്റുകാലത്ത് ഞാൻ കാറ്റുകാലം അതായത് ഡിസംബർ നവംബർ കാലങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റിനെ ഞാൻ വളരെയധികം ആസ്വദിക്കുന്നു ആ സമയത്ത് നമ്മുടെ വസ്ത്രങ്ങൾ വല്ലാതെ ഇങ്ങനെ പറന്നു പാറി കളിക്കുകയും ആ ഇളം കാറ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിന് കാറ്റ് കൊണ്ട് നമ്മളെ മുന്നിലോട്ട് ഇങ്ങനെ നടത്തിക്കുകയും അതെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമാണ് വേനലവധിക്ക് ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടെ അതായത് ഞാനും എൻ്റെ എൻ്റെ ഇളയച്ഛൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും കൂടി ഞങ്ങളുടെ കൃഷി സ്ഥലത്തു പോകുകയും ഞങ്ങൾക്ക് അന്ന് അന്ന് കൃഷി ഉണ്ട് കൃഷി ഉണ്ട് വേനൽക്കാലത്തു കൃഷി പുഞ്ചക്കൃഷി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ പുഞ്ചകൃഷി കൃഷിയിലേക്ക് വരുന്ന പശുക്കളെയും ആടുകളെയുമൊക്കെ ഓടിച്ചു വിടുന്ന ഒരു പ്രവൃത്തി ഞങ്ങളെ ഏൽപ്പിക്കാറുണ്ട് ഞങ്ങളുടെ രക്ഷിതാക്കൾ ആ കാലത്ത് ധാരാളം മാമ്പഴങ്ങൾ വീഴും വേനൽ കാലത്ത് ധാരാളം മാമ്പഴം ഉണ്ടാകും ആ മാമ്പഴമെല്ലാം മാമ്പഴം ഞാവൽപ്പഴം ഈ തുടങ്ങിയ പഴങ്ങളെല്ലാം ശേഖരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി പങ്കു വെച്ച് കഴിക്കും കൂടാതെ ഞങ്ങളുടെ എൻ്റെ ഇളയച്ഛൻ വേനൽക്കാലത്ത് ധാരാളം ഉണ്ടാകുന്ന ചക്കപ്പഴം പറിച്ച് എല്ലാവർക്കും ഇങ്ങനെ വീതിച്ചു വീതിച്ചു തരും അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയും തല്ലുകൂടി പറിച്ചു തല്ലുകൂടി കഴിക്കുകയൊക്കെ ചെയ്യും അതെല്ലാം ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു കുട്ടിക്കാലത്തെ രസകരമായ ഒരു അനുഭവമാണ്